റണ്ണിങ് ഒരു പേഷൻ ആയോണ്ട് തന്നെ ഞാനൊരു റണ്ണിങ് ക്ലബ്ബിലോക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യോക്കെ ഒറ്റക്ക് ഒറ്റക്ക് ഓടാൻ പോവാറായിരുന്നു അപ്പം ഇങ്ങനെ ആൾക്കാരെ എല്ലാവരും ഇങ്ങനെ നോക്കും അപ്പം നമുക്കൊരു ഇറിറ്റേഷൻ ആണ് പലോരും പരിഹാസത്തോടൊക്കെ നോക്കും ഇങ്ങനെ ഈ റണ്ണിങ് ക്ലബ്ബില് ജോയിൻ ചെയ്തോണ്ട് തന്നെ നമ്മൾ ഒരു പിന്നെ ഈ ഒരുപാട് ഈ റണ്ണിങിന്റ സെയിം വേവ് ലെങ്ത് ഉള്ളവരെ റണ്ണിയാൻ താൽപര്യമുള്ള ആ പേഷനിലുള്ള ആൾക്കാരിണ്ടാവുമ്പോൾ ഇങ്ങനെ കൂട്ടായിട്ട് ഓടുമ്പം നമുക്കും അതെ അങ്ങനത്തെ ഓട്ടങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവൂല ആ കൂട്ടത്തിലിങ്ങനെ ഓടി പോവാൻ അത് ഒരു രസമാണ് നമ്മൾ ഒറ്റക്ക് ഓടാണെക്കാട്ടിലും ഒറ്റക്കോടാണെങ്കിൽ നമുക്കും പൊതുവെ ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടാവരുതേ എല്ലാം ഒറ്റക്കായിട്ട് അങ്ങനെ ഓടണം അങ്ങനെ ഓടുമ്പം രസമാണ് അല്ലാണ്ടെങ്കിൽ കൂട്ടത്തിൽ ഓടണ രസം നല്ലത് അങ്ങനെ ആവുമ്പം അവരിങ്ങനെ ഓടി കമ്പ്ലീറ്റ് ആയി പോവാ പിന്നെ ക്ലബ്ബില് മഞ്ചേരി റണ്ണേഴ്സ് ക്ലബ്ബിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്രുപ്പിനൊപ്പം മാരത്തെല്ലാം പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് ഐ ഐ ടി നടത്തിയൊരു മാരത്തോണിൽ അതേപോലെ മലപ്പുറം റണ്ണേഴ്സിൻറെ ക്ലബ് നടത്തിയത് അങ്ങനെ കുറച്ച് മാരത്തോണുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിലേറ്റവും ഇഷ്ടപെട്ട ഐ ഐ ടി കോഴിക്കോട് നടത്തിയ അത് നല്ല രസമായിരുന്നു അതൊരു ഇരുപത്തൊന്ന് കിലോ മീറ്ററിൻറെ ഹാഫ് മാരത്തിനായിരുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു ഇപ്പം ഇനിം കൂടുതൽ മാരത്തണിലൊക്കെ പങ്കെടുത്ത് റണ്ണിങ് ക്ലബ്ബിലോക്കെ ഇപ്പം ആണ് സജീവമായത് കൂടുതൽ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവാന് തന്നെയാണ് താൽപര്യം താൽപര്യം